ഹലോ എ പി ഏജൻസീസല്ലേ ഞാൻ ഗ്യാസ് സിലിണ്ടർ ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിച്ചതാണ് പിന്നെ കഴക്കൂട്ടത്താണ് ഞാൻ താമസിക്കുന്നത് അപ്പാർട്ട്മെൻറ്റ് എൻ്റെ ഉപഭോക്ത ഐ ഡി വന്നിട്ട് ഒന്ന് രണ്ട് പൂജ്യം ഏഴ് എട്ട് നാല് രണ്ട് മൂന്ന് ഒന്ന് പൂജ്യം എഴുതിയെടുത്തായിരുന്നോ എനിക്ക് ഗ്യാസ് ഉടനെ തന്നെ കിട്ടണമെന്നുണ്ടായിരുന്നു എൻ്റെ അഡ്രസ്സ് ഞാൻ പറഞ്ഞ് തരാം അഡ്രസ്സ് വന്ന് സിന്ദൂരി എഴുതിയായിരുന്നോ സിന്ദൂരി കെ ആർ എ സി നാൽപ്പത്തി രണ്ട് സി നാൽപത്തി രണ്ട് കഴക്കൂട്ടം അപ്പാർട്ട്മെൻറ്റ് മനസ്സിലായല്ലോല്ലേ ഞാൻ ഇടക്ക് ഗ്യാസ് ബുക്ക് ചെയ്യുന്ന ആൾ തന്നെയാണ് അപ്പോൾ ഒന്ന് അവിടെ വേണം എത്തിക്കേണ്ടത് ക്യാഷ് ഞാൻ എങ്ങനെയാണ് അയക്കേണ്ടത് ഞാൻ വരുമ്പോൾ തന്നാൽ മതിയോ അതോ ഗൂഗിൾ പേ വല്ലോം ചെയ്യണോ എന്താണെന്നുള്ളതൊന്ന് പറഞ്ഞിരുന്നെങ്കിൽ ആ രീതീൽ ചെയ്യാമായിരുന്നു പിന്നെ പക്ഷേ ഗ്യാസെനിക്ക് ഉടനെ കിട്ടണം ശരിയെന്നാൽ ഓക്കേ അപ്പോൾ ക്യാഷ് എത്തിയതിന് ശേഷം ഞാനടക്കാം ബില്ല് കൊണ്ട് വരട്ടെ ശരി